അമിതമായി ആക്സിലേറ്റർ കൊടുക്കുന്നതാണ് ബൈക്ക് ഓടിച്ചു തുടങ്ങുന്നവർ ഓടിച്ചു തുടങ്ങുന്നവർ പൊതുവെ കാണിക്കുന്നൊരു തെറ്റ് അതിന് പ്രതിവിധിയായി ആക്സിലേറ്റർ സ്റ്റോപ്പർ എന്ന സാധനം യൂസ് ചെയ്ത് വാഹനം ഓടിക്കാൻ പഠിച്ചാൽ ബൈക്ക് ഓടിക്കാൻ പഠിച്ചാൽ വളരെ സുരക്ഷ ആയിരിക്കും നമ്മൾ പാലിക്കേണ്ട കുറേ നിയമങ്ങളുണ്ട് അയിനാത്ത് ബൈക്ക് ഓടിക്കുന്നത് ബൈക്ക് ഓടിക്കാൻ പഠിപ്പിക്കുമ്പോൾ തന്നെ പ്രധാനമായിട്ടും പഠിക്കേണ്ട കാര്യമാണ് ഹാൻഡ് സിഗ്നൽ ഹാൻഡ് സിഗ്നൽ അറിഞ്ഞിരിക്കേണ്ടത് വളരേ നിർബന്ധമായിരുന്ന ഒരു കാര്യമാണ് വലതുകൈ ഇട്ട് റൈറ്റ് സൈഡിലോട്ട് ഇൻഡിക്കേറ്റർ ഇടുന്നതിനുപകരം ഇൻഡിക്കേറ്റർ ഇടുന്നതിതിനൊപ്പം വലതുകൈ നീട്ടുകയും ചെയ്യുന്നത് നല്ലതാണ് അതാണ് നമുക്ക് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് ഇടത് സൈഡിൽക്കൂടിയാണ് നമ്മൾ വാഹനം ഓടിക്കേണ്ടതെന്ന് ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്ന ഒരാൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടൊരു കാര്യമാണ് അതേപോലെത്തന്നെ സിഗ്നലുകളുടെ കാര്യവും വളരെ ബോധ്യമുണ്ടായിരിക്കേണ്ടതാണ് സിഗ്നൽ ഹാൻഡ് സിഗ്നൽ തുടങ്ങിയ കുറേ അധികം നിയമങ്ങളുണ്ട് ഇപ്പോൾ ഈ ഇടതുവശം ചേർന്നുതന്നെ നമ്മൾ വാഹനം ഓടിക്കുക ഇൻഡിക്കേറ്റർ ഇടുക അതേസമയം കൈകൊണ്ട് സ്റ്റോപ്പ് റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നതിനുള്ള ഹാൻഡ് സിഗ്നൽ നിർത്തുന്നതിനുള്ള ഹാൻഡ് സിഗ്നൽ ഓരോ സ്ഥലത്തും നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള സ്റ്റോപ്പ് സിഗ്നൽ നമുക്ക് ഇടേണ്ടതാണ് ഇതൊക്കെ ഒരു ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്നൊരാൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് വരാത്തതിനുതന്നെ ബൈക്ക് ഓടിച്ചു തുടങ്ങുന്നവരുടെ സ്വാഭാവികമായും കാണിച്ചു തരുന്ന ചില തെറ്റുകളാണ് ഇപ്പോൾ വണ്ടി നിർത്തുന്നതിനുമുമ്പേ നമ്മൾ കാലുനീട്ടി എടുത്തുനോക്കുക അത് വളരെയധികം അപകടമാണ് അപ്പോൾ നമ്മൾ ബൈക്ക് നിർത്തുന്നതിനുമുൻപ് ബ്രേക്ക് അപ്ലൈ ചെയ്ത് വണ്ടി സ്ലോ ആയതിനുശേഷം മാത്രം കാലുകുത്തുക ചെയ്യേണ്ട